ബൈബിളിൽ ഞാൻ വിശ്വസിക്കുന്നു ബൈബിള് നല്ല കാര്യങ്ങളൊത്തിരി പഠിപ്പിക്കുന്നുണ്ട് അതിനകത്ത് ബൈബിൾ വചനം ഇങ്ങനെ പറയുന്നത് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് ബൈബിളിനെ കൊണ്ടാവശ്യം അതുപോലെത്തന്നെ നമ്മുടെ ശരീരത്ത് ഒരിക്കലും നമ്മൾ പീഡിപ്പിക്കരുത് ഭക്ഷണം കഴിക്കാതെയോ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം പിന്നെ മറ്റുള്ളവരോട് കരുണ കാണിക്കണം മറ്റുള്ളവരെ അവരുടെ അവരെ സഹായിക്കണം നമ്മുടെ ദശാംശം കൊടുക്കണം നമുക്ക് കിട്ടുന്ന ഓരോ ഓഹരിയുടെ ദശാംശം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാരുണ്യപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെയ്ക്കണം അതുപോലെത്തന്നെ സമരിയാക്കാരി സമരിയാക്കാരൻ തളർന്ന് വഴിയരികിലൊരു മനുഷ്യൻ അവശനായി കിടക്കുന്നുണ്ട് ബൈബിളിലൊരു ഭാഗമുണ്ടല്ലോ അപ്പം അതിലൂടെ ലേവര് പുരോഹിതരൊക്കെ കടന്ന് പോകുന്നുണ്ട് പക്ഷേ പാവപ്പെട്ടവനായ ഒരു സമരിയക്കാരനാണ് ഈ ഈ വ വഴിയിൽ അവശരായിക്കിടക്കുന്ന ഈ മനുഷ്യനെ അയാക്കടെ കഴുതപ്പുറത്ത് കൊണ്ട് പോയി സത്രത്തിൽ കൊണ്ടുപോയി അയാൾക്ക് പരിചരിക്കാനും പരിചരിക്കാനുള്ള പരിചാരകനെയൊക്കെ ഏൽപ്പിക്കുകയും പരിചാരകന് പൈസ കൊടുക്കുകയും ഇനിയും തിരിച്ച് വരുമ്പോളെന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ താരാമെന്നൊക്കെ ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ മനുഷ്യരെ എല്ലാവരെയും നമ്മൾ സഹായിക്കണം അത് തന്നെയാണ് സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സമാധാനമുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുന്നു എന്ന് ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട് ബൈബിളാണ് ഏറ്റവും കൂടുതൽ അതായത് ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളുടെ ബൈബിളില്ലേ യേശു പഠിപ്പിച്ച അതിനകത്താണ് മനുഷ്യൻ്റെ ശരീരം ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടുതലായിട്ട് സംസാരിക്കുന്നതും മറ്റുള്ളവർക്ക് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി നമ്മളും നമ്മളിൽ ആകുന്നത്ര നമ്മൾ അവരെ സഹായിക്കണമെന്ന് ബൈബിളിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്